ഇപ്പം കോഴി വളർത്തുന്നത് നോക്കുകയാണെങ്കിൽ ഇപ്പം കർഷകർ തമ്മിലും വീട്ടുമുറ്റത്ത് വളർത്തുന്നവർ തമ്മിലും വളരെയധികം വ്യത്യാസമുണ്ട് ഇപ്പം കർഷകരൊക്കെ ആണെങ്കിൽ അവർക്ക് എങ്ങനെയൊക്കെയാണ് കൃത്യമായിട്ടുള്ള അവരുടെ കണക്കുകളെന്നും ഭക്ഷണം എങ്ങനെയൊക്കെ കൊടുക്കണമെന്നും അതിന് ഏതു തരം ഭക്ഷണമാണ് കൊടുക്കേണ്ടതെന്നും അതിൻ്റെ എപ്പോഴൊക്കെയാണ് അതിന് രോഗ രോഗം പെട്ടെന്ന് വരുന്നതൊക്കെ അറിയാൻ പറ്റും രോഗം വരുന്നത് അനുസരിച്ച് അവർക്ക് മരുന്ന് കൊടുക്കാനൊക്കെ സാധിക്കുന്നതാണ് അപ്പം അവർക്ക് കൃത്യമായിട്ടും ഇതിനുള്ള കണക്കുകളൊക്കെയുണ്ട് അതുപോലെ തന്നെ അവർക്ക് ഇൻഷുറൻസ് കാണും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വച്ച് കാരണം അവർ കൂടുതൽ കൃഷിയാണല്ലോ അവർ കൃഷിയാണല്ലോ ചെയ്യുന്നത് അപ്പം കൂടുതലായിട്ട് അവർ അതിൽ ശ്രദ്ധിക്കുന്നതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ അവർക്ക് അറിയാവുന്നതായിരിക്കും പക്ഷെ വീട്ടിൽ വളർത്തുന്നവർ എനിക്ക് തോന്നുന്നു അവർക്ക് അങ്ങനെ കാര്യമായിട്ട് അറിയണം എന്നില്ല പക്ഷെ അവർ അവരുടെ ഒരു ആഗ്രഹത്തിന് അല്ലെങ്കിൽ അവരുടെ ഒരു സ്വന്തമായിട്ടുള്ള ഒരു ആവശ്യത്തിനു വേണ്ടിയിട്ട് മാത്രായിരിക്കും അവർ വളർത്തുന്നത് അപ്പം അവർക്ക് ഇത്രയും കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയണം എന്ന് നിർബന്ധമില്ല അത് അതാണ് എനിക്ക് കർഷകരും വീട്ടിൽ വളർത്തുന്നവരും തമ്മിലുള്ള വ്യത്യാസമായിട്ട് തോന്നിയിട്ടുള്ളത് അത് വീട്ടിൽ വളർത്തുന്നവർ എന്നും പറഞ്ഞ് ഭയങ്കര മോശമായിട്ട് നോക്കുന്നു എന്നല്ല അവർക്ക് കൃത്യമായിട്ട് അവർ കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിലുള്ള ഭക്ഷണം ഒക്കെ ആയിരിക്കും കോഴിക്കും കഴിക്കാൻ കൊടുക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയായിരിക്കും അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് അവർക്ക് അങ്ങനെ ഒരു ഒരു ശ്രദ്ധ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും ഇല്ലായിരിക്കും അവർക്ക് കൃത്യമായിട്ട് എപ്പോഴൊക്കെ അസുഖം വരും എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും അവർക്ക് അറിയാൻ പറ്റത്തില്ലായിരിക്കും അതുപോലെ തന്നെ ഇപ്പോൾ ഈയൊരു വളർത്തുമ്പോൾ ഇണേനെയൊക്കെ എങ്ങനെ എടുക്കണം എന്നതൊക്കെ അവരുടെ ജനിതകശാസ്ത്രവും ശാരീരിക സവിശേഷതകളൊക്കെ നോക്കിയിട്ട് നല്ല നല്ല കോഴിയും നല്ല അതിൻ്റെ ആ ഒരു രൂപ ഭംങ്ങിയൊക്കെ നോക്കിയിട്ട് ആയിരിക്കും നമുക്ക് ഇണകളെ എടുക്കാൻ കഴിയുക എന്ന് നോക്കുക നല്ല ആരോഗ്യമുള്ള കോഴിയാണ് എടുക്കേണ്ടത് എന്ന് ഒരു ഇണയെ കോഴിയല്ല എന്തായാലും അതിന് ആരോഗ്യമുണ്ടായിരിക്കണം എന്നതാണ് ഞാൻ നോക്കുന്നൊരു കാര്യം ഇണക്ക് ഇണയായിട്ട് എടുക്കുമ്പഴത്തേക്കും ആരോഗ്യമാണ് നോക്കേണ്ടത് രൂപ ഭംഗി എന്നതിനെക്കാളും നല്ലത് ആരോഗ്യം കൂടുതലുണ്ടെങ്കിൽ അത് അതിലുണ്ടാവുന്ന അടുത്ത ഒരു കോഴികൾക്ക് അല്ലെങ്കിൽ അടുത്ത ഒരു വരുന്ന പക്ഷികൾക്കൊക്കെ അതിനനുസരിച്ച് ദീർഘകാലം ജീവിക്കാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെത്തന്നെ ചെറിയ മൃഗങ്ങളും ചെറുപ്പമുള്ള മൃഗങ്ങളെയൊക്കെ എങ്ങനെ പരിപാലിക്കുക എന്ന് ചോദിച്ചാൽ അവരെ നല്ല രീതിയിൽ തന്നെ നമ്മൾ വലിയ കോഴികളെ നോക്കും നോക്കുന്ന പോലെ തന്നെ അവരെ പ്രത്യേകിച്ച് ചെറിയ വലിയ പ്രായം കുറഞ്ഞതും ജീവികളെയൊക്കെ പ്രത്യേകിച്ചും മാറ്റി അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ തരികളുള്ള ആഹാരങ്ങളും അങ്ങനെ വെള്ളവുങ്ങളക്കെ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ മാറ്റി വേറെ രീതിയിൽ കൊടുക്കണം എന്നാണ് ഞാൻ എനിക്ക് പറയാനുള്ളത്